വിദ്യാഭ്യാസത്തിനായി സര്ക്കാര് നിരവധി പദ്ധതികള് ആവിഷ്കരിക്കുന്നുണ്ട് ഈയിടെയായി കേന്ദ്ര സര്ക്കാരിന്റെ സഹായത്തോടെ സര്ക്കാര് നടത്തുന്ന വിദ്യാഭ്യാസ പദ്ധതിയായ നാസിന്റെ എക്സാമും സീസിന്റെ എക്സാമും വിദ്യര്ത്ഥികളുടെ നിലവാരമറിയാനും ആ നിലവാരത്തില് വേണ്ട മാറ്റങ്ങളുള്പ്പെടുത്തി വിദ്യാഭ്യാസം ആധുനിക തലത്തിലേക്കെത്തിക്കാനും സാധിക്കുന്നു ഈ ഈ കാലഘട്ടത്തില് വിദ്യാഭ്യാസത്തിന്റെ രംഗം തന്നെ ഉടനടി മാറുകയാണ് അദ്ധ്യാപകരുടെ നിലവാരം പഠന നിലവാരവും അദ്ധ്യാപകരുടെ ക്വാളിഫിക്കേഷനും സര്ക്കാര് മുന്നിര്ത്തി ഗുണമേന്മയുള്ള സിലബസ്സുകള് കൂട്ടിച്ചേര്ക്കുന്നു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് മുതലായ ക്ലാസ്സുകളില് നവീകരിച്ച പാഠപുസ്തകം ഉപയോഗിക്കുന്നു